തെക്ക് പടയണി വടക്ക് തെയ്യം ഇത് ഈ രണ്ട് കലാരൂപങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല തെയ്യം എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ വടക്ക് തെയ്യം കൊണ്ട് എന്താണുദ്ദേശിക്കുന്നത് തെക്ക് പടയണി കൊണ്ട് എന്താണുദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് കലാരൂപങ്ങളും എങ്ങനെയാണ് കരകൗശല വിദ്യയെ അല്ലെങ്കിൽ കരകൗശല മേഖല എങ്ങനെ സമ്പുഷ്ടിപ്പെടുത്താം അല്ലെങ്കിൽ എങ്ങനെ പരിപോഷിക്കാം എന്നുള്ളതിന് എനിക്ക് ശരിയായ ഒരു ഉത്തരം നൽകാൻ കഴിയില്ല കാരണം ആ ഒരു രണ്ട് കലാരൂപങ്ങളെ കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കത് പറയാൻ കഴിയില്ല